കൃഷിയിലെ യന്ത്രവൽക്കരണം നൂറ് ശതമാനവും കേരളത്തിൽ ഫലപ്രദമാണ് കാരണം കൃഷി യന്ത്രവൽക്കരണംകൊണ്ട് മാത്രമേ കാർഷിക മേഖലയിലുള്ള പുരോഗതിക്ക് പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളു അല്ലാത്തത് കൊണ്ട് യന്ത്രവർക്കരണം ഇല്ലായിരുന്നെങ്കിൽ തൊഴിലാളികളെക്കൊണ്ട് പണിയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒന്ന് ലേബർ പണിക്കൂലിയിലുള്ള വ്യത്യാസങ്ങള് ചാർജുകള് കൂടുതലുകള് അപ്പ അങ്ങനുള്ളതായ കാര്യങ്ങൾ വരുമ്പോഴ് അത് ചിലവിലൊത്തിരി കൂടുതല് വരും അപ്പോഴ് യന്ത്രവൽക്കരണം കൊണ്ട് നൂറ് ശതമാനവും കർഷകർക്ക് പൂർണ്ണമായിട്ടും വിജയകരമായിട്ട് കൃഷികൾ ചെയ്യാനും ലാഭമുണ്ടാക്കാനും പറ്റുകയുള്ളു അല്ല അതുകൊണ്ട് എന്നും മനുഷ്യൻ സകലമായ പണികൾ കൊണ്ട് കാർഷിക മേഖലെനെ കാർഷിക മേഖലയിലൊണ്ടായിരിക്കുന്ന യന്ത്രവൽക്കരണം കൊണ്ട് നൂറ് ശമാനവും കേരളത്തിൽ നല്ലതായ കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളു ഫലപ്രദവാണ് നൂറ് ശതമാനവും യന്ത്രവൽക്കരണം ഇല്ലായിരുന്നെങ്കിലിന്നത്തെ ഇന്നത്തെ രീതിയിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നതായ കൃഷി രീതിയിൽ നിന്നും കൃഷി ആ രീതികളുവായിട്ട് മുമ്പോട്ട് പോകുവായിരുന്നെങ്കിൽ ഇന്നത്തെ കാർഷികമേഖലയ്ക്ക് ഉണ്ടായ പുരോഗതി ഒര്കാരണവശാലും ഉണ്ടാവുകയില്ല കാർണിസ് കാരണം തേയിലയുടെ കൊളുന്തെടുക്കുന്ന കാര്യങ്ങൾക്കാണേലും മെഷിനിറങ്ങിയത് വളരെ ഉപകാരമാണ് മണ്ണിളക്കാനായിട്ട് ജെ സി ബി ഹിറ്റാച്ചി അങ്ങനെ ഉള്ളവ വന്ന് അതായത് യന്ത്രവൽക്കരണം നൂറ് ശതമാനം ഉറപ്പാണ് നിസാരമൊര് തേങ്ങയിടാനൊരു പണ്ടത്തെപ്പോലെ ഉള്ള മരം കയറ്റക്കാരോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത്കൊണ്ട് നൂറ് ശതമാനവും തേങ്ങയിടാനാണേലും മറ്റുള്ള കണ്ടം കിളയ്ക്കാനാണേലും കൊളുന്തെടുക്കാനാണേലും നിസാരം മുളക് മെതിക്കാനുള്ള മെഷിനായാൽ മെഷിനറി വന്ന് കൊണ്ട് ആണേലും എല്ലാം കൊണ്ടും നൂറ് ശതമാനവും ഉറപ്പാണ് പിന്നെ പഴയ പോലുള്ള ഏലക്കാടെയാണേലും ഡ്രയറ് കാര്യങ്ങള് അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നല്ലതായ കാര്യങ്ങളാണ് ഉറപ്പായിട്ടും